എളുപ്പം തയ്യാറാക്കി നല്കണം ജനങ്ങളില് അത് കൂടുതല് സ്വീകാരൃമാവുകയും ചെയ്യും ഈ റോഡ് പണി വേഗം ഒന്ന് അവസാനിക്കുകയും ഈ വഴി ഗതാഗത യോഗ്യമാക്കുകയും ചെയ്യുന്നതും അങ്ങനെ ഗ്രാമനിവാസികള്ക്കു വളരെ ഉപകാരപ്രദമാവുകയാണ് ചെയ്യുക